ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ഏറ്റവും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പെണ്ണുകൾ പ്രത്യേകിച്ച് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അവരുടെ വിദ്യാഭ്യാസമെന്ന് പറയുന്നത് ഒത്തിരിയേറെ നമ്മള് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ പെൺകുട്ടികളേയും ആൺകുട്ടികളേയും തമ്മിൽ വേർതിരിച്ച് ആൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക പെൺകുട്ടികൾക്കൽപ്പം കുറഞ്ഞ് പോയാലും കുഴപ്പമില്ല എന്ന് കരുതുന്ന ഒരു ഒരു തലമുറ നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളതൊത്തിരി മാറി എങ്കിലും ആ തലമുറയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികൾ വീട്ടിലിരിക്കേണ്ടവരാണെന്നും അല്ലെങ്കിൽ പെൺകുട്ടികളെ അടുക്കളയിൽ മാത്രം കഴിഞ്ഞുകൂടേണ്ടവരാണെന്നും ചിന്തിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾക്കും അത്രയും അല്ലെങ്കിൽ ഒരു പക്ഷെ അതിൽ കൂടുതൽ അവർക്ക് കഴിയുന്ന ഓരോരുത്തരുടെയും കഴിവിൻ്റെ പരമാവധി വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കരുതുന്നു എല്ലാം ഒരു ഒരു ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന മാതാപിതാക്കൾ പെൺകുട്ടികളുണ്ടാകുമ്പോൾ അവര് എങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടും അല്ലെങ്കിലവരെങ്ങനെ വിവാഹത്തിലേക്ക് നയിക്കും അതിനുവേണ്ട ചെലവുകളെങ്ങനെ അവര് അഭിമുഖീകരിക്കും എന്ന് പേടിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ അവരുടെ ആ മാതാപിതാക്കളുടെ വ്യാകുലത അപ്പോൾ തന്നെ തുടങ്ങുകയും ചെയ്യുവായിരുന്നു ആ കുട്ടികളെ പഠിപ്പിക്കാതെ ആ കുട്ടികളെ അടുക്കളയിൽ മാത്രം നിർത്തി അല്ലെങ്കിലവരെ ബാക്കിയുള്ള മറ്റുള്ള ജോലികൾ മാത്രം ചെയ്തുകൊണ്ട് വീടും വീടും പരിസരവും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തികൾ മാത്രം ചെയ്യിപ്പിച്ച് വളർത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ആൺകുട്ടികളെ പോലെ തന്നെ എല്ലാവരേയും പോലെ തന്നെ പെൺകുട്ടികളെ പഠിക്കുവാൻ വിടുവാനും അവർക്കും പരമാവധി വിദ്യാഭ്യാസം നൽകുവാനും ഇപ്പൊഴത്തെ മാതാപിതാക്കൾ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻറ്റൊരു സഹോദരി അല്ലെങ്കിലെൻറ്റൊരു മകളെന്ന നിലയ്ക് ഞാൻ ആലോചിക്കുവാണേൽ ആ കുട്ടിക്ക് എത്ര മാത്രം കഴിവുണ്ടോ ഇപ്പം എല്ലാ കുട്ടികൾക്കും ഒരേ കഴിവായിരിക്കണം എന്നില്ല എല്ലാ കുട്ടികൾക്കും ചിലപ്പം പഠിക്കുവാനായിരിക്കില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലായിരിക്കില്ല അവരുടെ മികവ് ചെലവർക്ക് പാട്ട് പാടാനായിരിക്കും ചിലർക്ക് കായിക രീതിയിലായിരിക്കും ചിലർക്ക് കലാരംഗത്തായിരിക്കും അങ്ങനെ ഓരോരുത്തരുടെ കഴിവും ഓരോ രീതിയിലായിരിക്കും എന്നിരുന്നാൽ പോലും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതിന് ശേഷം ആ കുട്ടിയുടെ താൽപര്യം എന്താണോ അതിനോട് അനുബന്ധിച്ചുള്ള പഠനം കൊടുക്കുകയും അതിൽ ഒരു ജോലി കണ്ടെത്തുവാൻ അവരെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായി അല്ലെങ്കിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു എൻ്റെ ഒരു മകൾ അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരി എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്തതിന് ശേഷം ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ മകൾക്ക് എന്തിനോടാണോ താല്പര്യം ഒരു ഡോക്ടറാകാനാണോ അല്ലെങ്കിലൊരു എഞ്ചിനീയറാകാനാണോ ഒരു അധ്യാപകനാകാനാണോ അല്ലെങ്കിൽ ഒരു ആരോഗ്യ രീതിയിലുള്ള ആരോഗ്യ രീതിയിലുള്ള എന്തേലും ഒരു ജോലിക്ക് താല്പര്യമാണോ എന്തിനോടാണോ താല്പര്യം അതിനോട് അനുബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകി അവരെ അതിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം പിന്നീട് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാലൊരുപക്ഷേ സംശയമാണ് ഇപ്പഴും പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് കൊടുത്തിട്ട് വിദ്യാഭ്യാസത്തിൽ വിദ്യാഭ്യാസം കൊടുത്തിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരു പറ്റം ആൾക്കാര് നമ്മുടെ ഇടയിലും ഇപ്പോഴുമുണ്ട് അതിൻ്റെ പല ഉദാഹരണങ്ങളുമാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ മാനസിക അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് അവരെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഈ സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഒര് ഒരു ഒരു താൽപര്യമോ അല്ലെങ്കിൽ ഒരു ഒരു ഐഡിയയും ഇല്ലാതെയായിരിക്കും അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവരെ ഈ സമൂഹത്തിൽ വളരാനായിട്ട് എങ്ങനെ വളരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതിനൊതുങ്ങുന്ന രീതിയിൽ അവരെ പ്രാപ്തരാക്കുക എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളോരോരുത്തരുടേയും ഒരു ഒരു അവകാശമാണ് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമായിട്ട് കരുതുക അവർക്ക് ആൺകുട്ടികളെ ആൺകുട്ടികൾ പെൺകുട്ടികളെന്നുള്ളൊരു വേർതിരിവില്ലാതെ തന്നെ ആൺകുട്ടികൾക്ക് എന്തൊക്കെ സഹായങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ അതിൽ കൂടുതൽ അല്ലെങ്കിൽ അത്രത്തോളം തന്നെ പെൺകുട്ടികളേയും കൊടുത്ത് അവരേയും മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘത്തിൽ ആൺകുട്ടികൾ ചെയ്യുന്ന പല കാര്യങ്ങളും പെൺകുട്ടികളും ചെയ്യുന്നുണ്ട് പണ്ടൊരു കാലത്ത് ഇന്നത് ആൺകുട്ടികൾ ചെയ്യാവൂള്ളു അല്ലെങ്കിൽ ഇതൊക്കെ ആൺകുട്ടികൾക്കും ഇതൊക്കെ പെൺകുട്ടികൾക്കും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ നമ്മൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നൊരു വേർതിരിവില്ലാതെ തന്നെ എല്ലാ രീതിയിലും പെൺകുട്ടികൾ അവരവരുടെ കഴിവ് തെളിയിക്കുന്നൊരു കാലഘട്ടമാണ് എല്ലാ മേഖലകളിലും അവരവരുടെ കഴിവ് തെളയിച്ചുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അത്ര ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും നമ്മള് അതിന് ഏറ്റവും നന്നായിട്ടുള്ള രീതിയിൽ തന്നെ അത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടൊരു ഉത്തരവാദിത്തം ആണ് അതുപോലെ തന്നെ പെൺകുട്ടികൾ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള നമുക്ക് ഒരു ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാനായിട്ട് അല്ലേ അപ്പം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മകൾ അല്ലേൽ നമ്മുടെ സഹോദരി അല്ലേൽ നമ്മുടെ ഒരു സുഹൃത്ത് ഇവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് എന്ന് നമ്മളാദ്യം ഉറപ്പ് വരുത്തുക അങ്ങനെ നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ അത് നമ്മുടെ നാട്ടിലെത്തുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സംസ്ഥാനം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ രാജ്യം അങ്ങനെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പെൺകുട്ടികൾക്കും അവർക്കാവശ്യമായ അല്ലെങ്കിലവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ഒരിക്കലും അവരെ വിവാഹത്തിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോകാതെ അവർക്ക് എത്രത്തോളം പഠിക്കണമോ അത്രത്തോളം പഠിച്ച് അവരെ പ്രാപ്തരാക്കുക അവരെ നല്ലൊരു ജോലിയിലേക്കെത്തിക്കുക അവർക്ക് ഒരു സാമ്പത്തികമായിട്ട് അവരെ സ്വതന്ത്രരാക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ പെൺകുട്ടികളുടെയും അവകാശമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തകളും അങ്ങനെ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഒരുപക്ഷേ ചിലപ്പോൾ അവർക്കാവശ്യമായ വിദ്യാഭ്യാസം അല്ലെങ്കിലവർക്കാവശ്യമായ നല്ലൊരു ജോലി അവർക്കാവശ്യമായ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെലപ്പോൾ പല പ്രശ്നങ്ങളും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ പെൺകുട്ടികളെ നമ്മുടെ കഴിവിനൊത്തവണ്ണം നമ്മള് പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം